നമ്മുടെ പ്രദേശത്തു ഭൂമി ഇടപാടുകളില് ആളുകൾ നേരിടുന്നൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അതി അതിർത്തി പ്രശ്നമാണ് നമ്മുടെ സ്ഥലത്തിനെ അതിർത്തി പിന്നെ നമ്മ് നമുക്ക് ഇത്രയും സ്ഥലമെന്ന് പറഞ്ഞാൽ ഒരു പത്തുസെൻറ്റാണെങ്കിൽ പത്തുസെൻഡ് അഞ്ചു സെൻഡെന്നുള്ള സ്ഥലം ഉണ്ടാവും എന്നാലും അത് അടുത്തുള്ള ആളുകളാണെങ്കിൽ പറയും ഇത്രയൊന്നും ഇല്ല ആധികമൊന്നും ഇല്ല നിങ്ങൾക്ക് ഇത്ര സ്ഥലമൊള്ളു എന്നൊക്കെ പറഞ്ഞു അവര് കയ്യേറുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ സ്ഥലം തന്നെ അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നേന്ന് പറഞ്ഞാല് ഇബു നമ്മളീ നമ്മടെ സ്ഥലം വിൽക്കുമ്പോൾ തന്നെ വിൽക്കുന്ന സമയത്ത് ആ സ്ഥലം കൊള്ളില്ല നല്ലത് അല്ല അത്ര റേറ്റൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത്ര വില കിട്ടാണ്ട് കൊടുക്കാൻ വേണ്ടീട്ടൊക്കെ നമ്മളിവിടുന്ന് വിറ്റ് പോവാതിരിക്കാനൊക്കെ ആൾക്കാര് അങ്ങനെ ചെയ്യാറുണ്ട് ആ സ്ഥലം നല്ല അല്ല കൊള്ളില്ലാന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കി ഒഴിവാക്കുന്നവരൊക്കെ ഉണ്ട് അങ്ങനെക്കെ ഒരുപാട് ആളുകള് അങ്ങനെ പിന്നെ ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങള് തന്നെയാണ് പിന്നെ അതിന് അതിനെ ചൊല്ലി പിന്നെ നമുക്ക് നമ്മുടെ സ്ഥലം വിക്കാനോ എവിടെക്കും മാറി താമസിക്കാനോ അങ്ങനൊന്നും പറ്റാത്ത സ്ഥിതിയൊക്കെ വരുന്നുണ്ട്